പിന്നെ ഞങ്ങളുടെ പക്കലുള്ള പ്രധാനപ്പെട്ട നെയ്ത്തിനും തുന്നലിനും ഒക്കെ ഉള്ള സാധനങ്ങളെന്ന് പറയുമ്പം നമുക്ക് പിന്നെ നല്ല മെഷിൻ അതായത് കാല് കൊണ്ട് ചവിട്ടുന്ന മെഷീൻ ആയിരുന്നു നേരത്തെ ഇപ്പം മോട്ടറ് കൊണ്ടുള്ള പമ്പ് കൊണ്ടുള്ള മെഷിനുണ്ട് പിന്നെ തുന്നലിനൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് നമുക്ക് കട്ടി ഉള്ള തുണിക്കാണെങ്കിൽ നല്ല കട്ടി ഉള്ള തുണി തയ്ക്കുമ്പം നമുക്ക് കട്ടി ഉള്ള സൂചി വേണം അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ തുണിക്കാണേ ചെറിയ സൂചി മതി ചെറിയ സൂചി മതി പിന്നെ നൂലാണെങ്കിൽ ഇപ്പം പല തരം കളറിലുള്ള തുണികളായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് അപ്പം അതിന് അനുസരിച്ചു നമ്മൾ എല്ലാ കളറും അതായത് റെഡോ ബ്ലുവോ പച്ചയോ മഞ്ഞയോ എല്ലാ കളറും നമ്മൾക്ക് മേടിക്കാം പല കളറിലുള്ള നൂലുകൾ വേണം പല കളറിൽ കോട്ടൺ തുണികളുണ്ട് കമ്പിളി തുണികളുണ്ട് അപ്പം നമ്മൾക്ക് പല പല കളറിലുള്ള നൂലുകൾ നമ്മൾ മേടിക്കണം ഇതിൽ കൂടുതലും മെച്ചപ്പെടാൻ സാധനമാണ് കൂടുതൽ വാങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ സാധനമായിട്ട് നമ്മൾക്ക് നൂല് ഏറെ വേണ്ടി വരും പല കളറിലുള്ള തുണികൾ കോട്ടൺ തുണികൾ ഇഷ്ടം പോലെ വരും അപ്പം കോട്ടൻ്റെ തുണികൾ പിന്നെ സിൽക്കിൻ്റെ തുണികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ചില സാഹചര്യങ്ങളിൽ ചില സമയത്ത് നമ്മൾക്ക് പിന്നെ ഈ കമ്പിളി അതായത് കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഒന്നടിക്കാൻ ഒക്കെ ആയിട്ട് വരും അപ്പം അങ്ങനെ ഉള്ള ആ സാധനങ്ങൾ നമ്മൾ ഇപ്പം ഇങ്ങനെ ഏറെ ഏറെ നമുക്ക് കോട്ടൺ തുണി വരുന്നത് ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി നമുക്ക് കൂടുതൽ വരുന്ന കോട്ടൺ തുണി ആണ് അത് നമ്മൾ തയ്ക്കാനായിട്ട് ഒത്തിരി ഒത്തിരി നമുക്ക് പല കളറിലുള്ള നൂല് വേണം അതുപോല തന്നെ കട്ടി ഉള്ള തുണികളൊക്കെ തയ്ക്കുമ്പം നമ്മൾക്ക് പിന്നെ പിന്നെ സൂചി ആണെങ്കിലും കട്ടി ഉള്ള സൂചി വേണം ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ആണ് ഞങ്ങൾ വാങ്ങുന്നത് പിന്നെ മെഷിനാണെങ്കിലും ആദ്യ കാലങ്ങളിൽ നമ്മൾക്ക് ചവുട്ടുന്ന ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾക്ക് മോട്ടർ വച്ചുള്ള പിന്നെ ഇത് മെഷിനും ഉണ്ട് ചവുട്ടുന്ന മെഷിനിലാണ് നമ്മൾ പണ്ട് മുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അത് കൂടുതലായിട്ട് ചവിട്ടുന്ന മെഷിനിലേക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത് പിന്നെ ഇങ്ങനെ ആണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തയ്ക്കുന്നത് നന്നായിട്ട് തയ്ക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല ചിലവുകളുണ്ട് നൂലിനൊക്കെ നല്ല പൈസ ചിലവാക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് സൂചി ആണെങ്കിലും തയ്ച്ചു കൊണ്ടിരിക്കുമ്പം ചിലപ്പം ഒടിഞ്ഞ് പോകും സൂചി വേറെ മാറി തയ്ക്കേണ്ടി സൂചി വേറെ മാറി കൊടുക്കേണ്ടി വരും നൂലാണെങ്കിലും തയ്ച്ചു കൊണ്ട് ചിലപ്പം പൊട്ടി പോകാറുണ്ട് അപ്പം മാറി മാറി ഇട്ട് കൊടുക്കണമെങ്കിൽ അത് കണക്ക് അതുപോലെ നമ്മൾക്ക് സാധനങ്ങൾ നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റവും വേണ്ടി വരും പിന്നെ അതുപോലെ മെഷിനാണേലും ചിലപ്പം കംപ്ലൈൻ്റൊക്കെ വരാറുണ്ട് അതും മാറി കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു